വരയ്ക്കാൻ എന്തായാലും കുറച്ച് കഷ്ടപ്പാടുണ്ടാകും അപ്പം നമ്മൾ അതിനൊക്കെ നമ്മള് കുറെ ഹെല്പ് ചെയ്യുകയാണ് വേണ്ടത് സഹായിക്കുക നല്ല സഹായിക്കണം എന്ത് ഇങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ ഇപ്പം തന്നെ വാട്സപ്പ് നോക്കുകയാണെങ്കിൽ ഓരേ നമ്മള് മറ്റുള്ള ചാറ്റ് ചെയ്യുമ്പോളൊക്കെ ഇത് എങ്ങനെയാണ് ചെയ്യണ്ടത് നമ്മള് അവരുടെ ഒപ്പം നിന്നവരെ സഹായിക്കുകയാണ് വേണ്ടത് അവരെ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തളർത്തരുത് നിങ്ങൾക്കൊക്കെ സിമ്പിളാണ് പറഞ്ഞ് അവരുടെ ഒപ്പം നിൽക്കുകയാണ് വേണ്ടത് അങ്ങനെ ഇപ്പോൾ വാട്സപ് ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ് വരികയാണെണെങ്കിൽ ചാറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെ ഒക്കെയാണ് ചെയ്യാണ് ഇതു ഈ ബട്ടണമർത്തിയാൽ സെൻടാവും ര രണ്ട് ടിക്ക് വന്നാൽ ബ്ല്യൂ ടിക്ക് വന്നാൽ അത് അവർ കണ്ടു എന്നൊക്കെയാണ് നമ്മള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നതിലൂടെ മാത്രമാണ് അവർക്കിത് എളുപ്പമാക്കാൻ എളുപ്പം ചെയ്യാവുന്ന വിധത്തിലാക്കാൻ നമുക്ക് കഴിയുകയുള്ളു അല്ലാതെ നമുക്ക് കഴിയില്ല അവർക്കൊപ്പം നിന്ന് അവരെ സഹായിക്കുകയോ അവരെ താങ്ങി നിർത്തുകയാണ് നമ്മള് ചെയ്യേണ്ടത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് കഴിയില്ല അവരെ നമ്മൾ ഇപ്പോഴത്തെ ടെക്നോളജീമായി നമ്മള് അവരെയും ഇതിലേക്ക് കൊണ്ടുവരികയാണ് അല്ല നമ്മള് മാത്രം ആക്കുകയല്ലാതെ അവരെ ഇതിക്ക് കൊണ്ടുവരണം എന്നാലാണ് അവർക്ക് നമ്മളെ ഇപ്പത്തെ ഇത് എക്സ്പ്ലോറ് ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളു